അതെ അതെ ആ പറയൂ ആ ഉണ്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വീടാണ് വേണ്ടത് ആ വീടായിട്ട് വേണോ അതോ ഫ്ലാറ്റോ അങ്ങനെയാണോ എങ്ങനെയാണ് നോക്കുന്നത് ആ ഓക്കെ ഇതിലിപ്പോൾ മറ്റേ കിണറുള്ളതാണോ അതോ ബോർവെല്ലോ ആ ഓക്കെ ഇതിലിപ്പം നമുക്ക് ഇവിടെ എവിടെയാണ് ടൗണിൻ്റെ അടുത്തു വേണോ അതോ ആ ടൗണിൻ്റെ അടുത്തു വേണോ അതോ കുറച്ചു ഉള്ളിലോട്ടായാലും കുഴപ്പല്ലേ എങ്ങനെയാണത് ആ ഓക്കെ ഓക്കെ ആ ആ അല്ല ടൗണിന്റെ അടുത്താണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു വാടകയും കൂടുതലായിരിക്കും മറ്റേ ആ ഓക്കെ ഓക്കെ നമ്മളുടെ അടുത്തിപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെയുണ്ട് അത് ഇപ്പോ കാണാൻ പറ്റും കുഴപ്പല്ല എങ്ങനാണ് വന്നിരിക്കുന്നത് വണ്ടിയിലാണോ ആ അതിലിപ്പോൾ എങ്ങനാണെന്നു വെച്ചാൽ നമുക്ക് ഇപ്പോ നമ്മൾ ഇവിടുന്നിപ്പോൾ അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുകയാണോ ആ ഓക്കെ നമുക്കിപ്പോൾ അടുത്ത് രണ്ടെണ്ണം ഉണ്ട് അപ്പം അതിന് അനുസരിച്ചിപ്പോൾ നിങ്ങൾക്ക് രാവിലെ എന്താ എന്താ വർക്ക് ബാങ്ക് ബാങ്കിലാണോ ആ ആ ഓക്കെ അപ്പം ശരി അപ്പ ടൗണിനടുത്തു തന്നെയായിട്ട് നമുക്ക് നോക്കാം ആ ആ ഓക്കെ ആ ആ ടൗണിനടുത്തുള്ളതിനു നമുക്ക് ഏകദേശം വാടക വന്നിട്ട് അയ്യായിരത്തി അറുന്നൂറ് ആണ് അഡ്വാൻസ് വന്നിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് റൂം വന്നിട്ട് അതിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഒരു കിച്ചൺ ഏരിയ വരുന്നുണ്ട് ഒരു മെയിൻ ഹാൾ ഒരു സിറ്റ്ഔട്ട് ബാത്റൂം രണ്ടും അറ്റാച്ഡ് ആണേ ഒരു വർക്ക് ഏരിയ ഉണ്ടാകും ആ മറ്റെ മുകളിൽ വേക്കൻറ് ആണ് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറാരെക്കെങ്കിലും ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് വാടകക്ക് കൊടുക്കണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലാ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം മുകളിലും ഇതേപോലെ ഒരു അവിടെ പക്ഷെ വൺ ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ഉണ്ട് മുകളിൽ ഇതേപോലെ വാടകക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു പിന്നെ അതാരും അങ്ങനെ എടുക്കാത്ത കാരണം കൊണ്ട് കൊടുത്തിട്ടില്ലാന്നു മാത്രം ആ ആ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ഒരു അഞ്ചു മിനിട്ട് എനിക്ക് ചെറിയോരു വർക്കുണ്ട് അത് ഉറപ്പിക്കാം അല്ലേ എന്നാ നമുക്ക് എന്ന ഞാനാ ഓണറെ വിളിച്ചു സംസാരിച്ചു ആ ആ നമുക്ക് ആ റെഡി എന്നാ നമുക്കൊന്നു കാണാം കാണാം ഒരു അഞ്ചു മിനിട്ട് നമുക്കത് കാണാം ഇപ്പം എന്തായാലും ആ ഓക്കെ ഓക്കെ